എന്നാ നമ്മുടെ ശേഖരത്തിലേക്ക് പല പല പല പല പല രാജ്യങ്ങളുടെ സ്റ്റാമ്പുകള് സ്റ്റാമ്പുകള് നാണയങ്ങള് നമ്മുടെ ശേഖരത്തില് എൻ്റെ കൈയിലുണ്ട് ശേഖരത്തിലുണ്ട് നമ്മള് എന്നാ പല പല വിദേശ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ പിന്നെ നാണയങ്ങള് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പണ്ടുണ്ടായിരുന്ന പണ്ട് നമ്മള് പണ്ട് കാലത്തെ നമ്മളുടെ നാട്ടിലെ ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ അങ്ങനെ പൈസകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊന്നും ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ പത്ത് പൈസ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല ഇപ്പോൾ എല്ലാം ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് ഉള്ള ഇതുള്ള ഇതാണുള്ളത് എൻ്റെ കൈയ്യില് നമ്മുടെ കൈയ്യില് സാധനങ്ങള് പല പല പല പല നാട്ടിലെ പല പല പല രാജ്യങ്ങളുടെ നാണയങ്ങള് നമ്മളുടെ ശേഖരത്തിലുണ്ട് ശേഖരത്തിലുണ്ട് പല പിന്നെ നാണയങ്ങള് അങ്ങനെ നമ്മുടെ ശേഖരത്തില് ഉണ്ട് ഇഷ്ടംപോലെ പിന്നെ പല പല സ്റ്റോണുകള് പല പല പല പല പല ഡിസൈൻ പല പല നാട്ടില് വിദേശ രാജ്യങ്ങളിലുക്കൂടിയൊക്കെ പോയപ്പോള് പോയിട്ടുള്ളവര് കൊണ്ട് നമ്മൾക്ക് കുറെ അങ്ങനെ പല പല സൈസിലുള്ള സ്റ്റോണുകള് നമ്മുടെ ശേഖരത്തിലുണ്ട് പല പല സ്റ്റോണുകള് അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മുടെ ശേഖരത്തില് നല്ലപോലെ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ പാറകള് പാറകള് അങ്ങനെ പല പല സാധനങ്ങള് നമ്മള് നമ്മുടെ ശേഖരത്തിലുണ്ട് പരമ്പരാഗതം പരമ്പരാഗതമായിട്ട് നമ്മുടെ എന്നാ നമ്മുടെ മാതാപിതാക്കൾ പൂ എന്നാ മുൻ നമ്മള് മുൻ തലമുറ നമ്മുടെ അപ്പൂപ്പ അപ്പനപ്പൂപ്പന്മാരായിട്ട് നമുക്ക് ഏറെ തന്നിട്ടുള്ള പല പല സാധനങ്ങൾ എന്നാ നാണയങ്ങള് വിവിധ വിവിധ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സ്റ്റോണുകള് നല്ല നല്ല ഭംഗി കണ്ടാൽ നല്ല കാണാൻ നല്ല ഭംഗിയുമുള്ള സ്റ്റോണ് ഒക്കെ നമ്മുടെ ശേഖരത്തിലുണ്ട് അതൊക്കെ വളരെ ഒരു അമൂല്യനിധിയായിട്ട് അമൂല്യനിധിയായിട്ട് സൂക്ഷിച്ച് നമ്മള് ഒരു നല്ല ഒരു ഒരു ശേഖരമായിട്ട് നമ്മളത് ശേഖരിച്ച് നമ്മള് സൂക്ഷിച്ച് നമ്മള് സൂക്ഷിക്കുന്നുണ്ട് നല്ല നല്ല സ്റ്റോണുകള് സ്റ്റാമ്പുകള് പഴയ പഴയ നാണയങ്ങള് അങ്ങനെ പലപല സാനങ്ങള് നമ്മള് സൂക്ഷിച്ച് നമ്മുടെ കൈയ്യില് നമ്മളത് ഒരു മുതൽ കൂട്ടായിട്ട് നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്